ഇപ്പോൾ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പലവിധേന നമുക്ക് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാം മറ്റേ കപ്പി ഉപയോഗിച്ചും അല്ലാണ്ട് മോട്ടറ് ഉപയോഗിച്ചും ഒക്കെ നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ സാധിക്കും ഇപ്പോൾ മോട്ടറിൻ്റെ പറയുകയാണെങ്കിൽ മോട്ടർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരുപാട് ആഴമുള്ള കിണറാണെന്നുണ്ടെങ്കിൽ മോട്ടറ് ഇറക്കി അങ്ങനെ കിണറും ആയിട്ട് കണക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം എടുക്കാറുള്ളത് അതേസമയം ഒരുപാട് ആഴം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് ഒരു മോട്ടോറ് വെച്ചിട്ട് അതിൻ്റെ പ്രഷർ കൊണ്ടിട്ട് നമുക്ക് വെളളം കിട്ടുന്നതാണ് ഇങ്ങനെ രണ്ടു തരം മോട്ടോറാണ് വെള്ളം എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ പൊതുവേ എന്താണ് കിണറ്റിൽ നിന്നൊക്കെ വെള്ളം എടുക്കാനായിട്ട് ഇൻഡക്ഷൻ മോട്ടർ അങ്ങനത്തെ ടൈപ്പാണ് യൂസ് ചെയ്യാറുള്ളത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അതിനെപ്പറ്റി അറിയുന്നത് കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ രണ്ടു തരം മോട്ടോറുകളുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊതുവേ വെള്ളമെടുക്കുന്നത് കാണാറ് കണ്ടു വരുന്നത് അപ്പം ഒരുപാട് ആഴം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ മോട്ടറ് ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കേണ്ട ആവശ്യമില്ല പുറത്തു വെച്ചിട്ട് അതിൻ്റെ പ്രഷറ് കൊണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നതാണ്